മനസികാരോഗ്യ കേന്ദ്രങ്ങൾ വേണം കൗൺസിലിങ് സെൻറ്ററുകള് വേണം ഈ മാനസികാരോഗ്യമെന്ന് പറയുന്നത് നമ്മളൊറ്റപ്പെടുന്നത് അല്ലങ്കില് എന്തെങ്കില് അബ്യൂസ് നേരിടുമ്പം അല്ലങ്കില് എന്തെങ്കിലും പെട്ടന്നുള്ള ഇൻസിഡൻറ്റ് കാണുമ്പം നമുക്ക് ചിലപ്പം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളാ നിന്ന നിപ്പിലങ്ങനെ ഫ്രീസ് ആയിപ്പോകും ചില കാര്യങ്ങളില് അപ്പം അങ്ങനെയുണ്ടാകുന്ന പെട്ടന്ന് നമുക്ക് പെട്ടന്ന് ആരിൽ നിന്നുണ്ടാകുന്ന നമ്മള് പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തി മരിക്കുമ്പൊഴോ അല്ലങ്കില് എന്തേലും ആക്സിഡൻറ്റിൽ കൂടൊക്കെയാണ് നമുക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുന്നത് പിന്നെ വിഷാദ രോഗമെന്ന് പറയുന്നത് ഇപ്പത്തെ ന്യൂജനറേഷനുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കോളേജ് വിദ്യാർഥികളില് കൂടുതലും പ്രേമ നിരാശ ബാധിതയായിട്ട് വരുമ്പം പിന്നെ അവരുടെ ലൈഫ് അവര് എൻജോയ് ചെയ്യുന്നു ആ ഇപ്പത്തെ പ്രായത്തിൻ്റെ ഒരു ആ ചോരത്തിളപ്പിൽ ചെയ്ത് കൂട്ടുന്ന പലതും പിന്നെ ചിന്തിക്കുമ്പം അവര് വിഷാദരോഗത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പം ഇതിനൊക്കെന്ന് വച്ചിട്ടുണ്ടെൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻന്ന് പറഞ്ഞിട്ടുണ്ടെൽ കൗൺസിലിംഗ് കൊടുക്കുക സ്കൂളുകളില് കോളേജുകളില് പിന്നെ അങ്ങനെയുള്ള നല്ല നല്ല ക്ലാസുകള് കൗൺസിലിംഗ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് അവരെ ആ ഒരു ഇതിൽനിന്ന് നമ്മള് റിക്കവറായിട്ട് കൊണ്ട് വരാൻ പറ്റും അപ്പം ഒരു ഒരു ഒരു തെറ്റൊരാള് ചെയ്തൂന്ന് വച്ചിട്ടുണ്ടങ്കില് അവരിൽ നിന്നത് പിന്നെ ആ ചിലപ്പം മറയ്ക്കാൻ ശ്രമിക്കും ചെറിയ മക്കളൊക്കെ മക്കൾടെ അടുക്കല് അബ്യൂസുകളൊക്കെ പലപ്പോഴും തേഞ്ഞും മാഞ്ഞും പോവും മക്കൾക്ക് പറയാൻ പേടിയായിരിക്കും എന്നെ അയാൾ അങ്ങനെ ചെയ്തു എന്ന് ആ കൊച്ചിന് പറയാൻ പേടിയുള്ളോടത്തോളം കാലം ആ പലതും തേഞ്ഞു പോയി ഇപ്പഴെത്ര നടക്കുന്നൊണ്ട് ആ കുഞ്ഞി കൊച്ചിനതൊന്നും പറയാൻ പറ്റില്ല അപ്പം പേരെൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ് മക്കളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മക്കളുടെ പിന്നെ വേറൊരാൾടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റായ ഒരു അബ്യൂസ് വരുമ്പം ആ കൊച്ചങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി പ്രതികരിക്കേണ്ട എങ്ങനെയാന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മാതാപിതാക്കളാണ് പിന്നെ സമൂഹത്തിലുൻ ഈ ഡോക്ട്ടേഴ്സ് പിന്നെ കൗൺസിലേഴ്സക്കെ ഇത് മുന്നോട്ട് വരുവാണെങ്കി ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈ കാര്യം ചെയ്യാൻ പറ്റും